ഹലോ ഹലോ അപ്പം പ്രിൻസിപ്പൽ സിസ്റ്ററല്ലേ ആ ഞാൻ ആ ഞാൻ നമ്മുടെ ആ സോഫിയാ ഇല്ലേ സോഫിയായുടെ ഫാദറാ സോഫിയ ഇല്ലേ നമ്മുടെ നാലാങ്ക്ളാസിൽ പഠിക്കുന്ന കുട്ടി സോഫിയ നാലാങ്ക്ളാസ് നാലാങ്ക്ളാസ്ല് ആ സോ സോഫിയായുടെ ഫാദറാണെ മിസ്സേ ഞങ്ങൾക്കൊരൂ ഒരു അത്യാവശ്യം പ്രശ്നമുണ്ടായ് ഞങ്ങൾക്കൊരു ടൂ ടൂറ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു നാല് ദിവസത്തെ അവധി വേണമായിരുന്നു മോൾക്ക് അപ്പം സിസ്റ്റർനെ വിളിച്ചാലേ അവധി കിട്ടത്തുള്ളൂന്ന് പറഞ്ഞു അതോണ്ടാ അത് സിസ്റ്ററെ അതങ്ങനെ അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ ആൾക്കാരൊക്കെ പുറത്തൂന്നക്കെ ആൾക്കാരുണ്ട് അവരെല്ലാം കൂടെ വന്നിട്ട് അവർ തീരുമാനിച്ച ഒരു കാര്യമാണ് സാരമില്ല കൊച്ച് നല്ലത് പോലെ പഠിക്കുന്ന കൊച്ചല്ലേ അത് അവൾ നോട്ടൊക്കെ എഴുതിയെടുക്കും എഴുതിയെടുത്ത് എടുത്ത് എടുത്തോളാം നോട്ടക്കെ എഴുതിയെടുത്ത് ഞങ്ങൾ പഠിപ്പിച്ചാൽ പോരെ ഒന്ന് ഒന്നഡ്ജസ്റ്റെ ചെയ്യ് എങ്ങനേലും ഒന്ന് കാരണം നിവർത്തി ഇല്ലാത്തോണ്ട് ചോദിക്കുകാ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ് ഇത് അത് അത് വേണമത് അറിയാം പക്ഷേ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല അതോണ്ടാ ഒന്ന് ഒന്ന് ഒന്നെങ്ങനേലുമൊന്ന് അഡ്ജസ്റ്റെ ചെയ്യ് കാരണം ഒന്നുമല്ലല്ലോ ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു സംഭവം ചോദിക്കുന്നത് കൊച്ചുകുഞ്ഞല്ലെ ഒറ്റക്കിട്ടിട്ട് പോകാനും പറ്റില്ല ഞങ്ങൾക്ക് പോകാതിരിക്കാനും പറ്റില്ല അങ്ങനൊരു സാഹചര്യമാണ് അത് ടീച്ചർൻ്റെ പേര് ഒരു ഒരു സിസ്റ്ററാണല്ലോ എന്തുവാ ആൻ മരിയ എന്തോ സിസ്റ്ററാന്ന് തോന്നുന്നു നാലാങ്ക്ളാസില് നാലാങ്ക്ളാസിലെ സിസ്റ്ററല്ലേ അ എങ്ങനെ നാ നാല് ബി നാലാങ്ക്ളാസ്സ് ബി ബി ബീ ഡിവിഷൻ ആ ബീ ഡിവിഷൻ ആ ആ ഞങ്ങളത് ഞങ്ങൾ മാക്സിമമൊരു എല്ലാം നോട്ട്സെല്ലാം വാങ്ങിച്ച് എല്ലാം ഞാൻ എല്ലാം കൃത്യമായിട്ട് എഴുതാം ഞങ്ങളെ കുട്ടി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുമില്ലേ സിസ്റ്ററേ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ലാത്തോണ്ടാ അതുകൊണ്ടാണ് സിസ്റ്ററെ ബുദ്ധിമുട്ടിക്കുന്നത് അത് ഉയ്യോ അവൾക്ക് വേണ്ടി മാത്രേമോ ആ അത് ആ അത് ശരിയാണ് അത് ചെയ്യാം സിസ്റ്ററെ അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ നിവർത്തിയില്ലല്ലോ ആ ഓക്കെ എന്നാൽ ശരി ഓക്കെ